ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ ഒരു സന്ദേഹം പുലർത്തുന്നതുമായ ഒരു വിഷയമുണ്ട് അതെന്താണെന്നു വച്ചെങ്കിൽ ആണും പെണ്ണും തമ്മിലുള്ള ലിംഗ വ്യത്യാസം ലിംഗപക്ഷാഭേതം അതിനെക്കുറിച്ച് അത് ഇന്ത്യയിൽ എഴുതാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഒരുപാടുപേർ അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട് എങ്കിലും എൻ്റെ ഒരു കാഴ്ച്ചപ്പാടനുസരിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ പേരിലാണ് ഇവൾ സാധാരണ എല്ലാ പെണ്ണുങ്ങളും അല്ലെങ്കിൽ പെൺ പെൺകുട്ടികൾ ഇത് നമ്മൾ എഴുതുമ്പോൾ ആ അവർ അവരുടെ പെൺകുട്ടികളെ ന്യായീകരിച്ച് പെൺകുട്ടികൾക്ക് എല്ലാത്തിനും സമത്വം വേണം പെൺകുട്ടികൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നും പറഞ്ഞ് എഴുതുമ്പോൾ അതിന് ഒരുപാട് ആണുകളാണ് നെഗറ്റീവ് കമെൻ്റ് ഇടുന്നത് എങ്കിൽക്കൂടി അതിലും പെണ്ണങ്ങളും ഉണ്ട് നെഗറ്റീവ് കമെൻ്റ് ഇടുന്നത് അതേ സമയത്ത് ഒരു ആൺകുട്ടി ഇതേ പെണ്ണിനെയും ആണിനെയും നിർത്തിത്തിരിച്ച് ഒരു കാര്യം എഴുതിയെങ്കിലും അതിനും ഇതുപോലെതന്നെ നെഗറ്റീവുകൾ ഓരോരുത്തരും പറയും അതായത് ആണും പെണ്ണും ഒരുമിച്ചുനിന്ന് പറയുന്ന ഒരു കാര്യമില്ല നമ്മളൊന്നാണ് ആണ്ണിനും പെണ്ണിനും വ്യത്യാസം ഇല്ല അവർ രണ്ടുപേരും മനുഷ്യരാണ് ഇന്ന് രണ്ടുപേരും ചേർന്നുനിന്ന് ഒരിക്കലും പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും മാധ്യമങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ മുൻപിൽ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആണിനും പെണ്ണിനും ഒരു ഈഗോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആൺകുട്ടികൾക്ക് തങ്ങളാണ് ഏറ്റവും മികച്ചത് പെണ്ണുങ്ങളേക്കാൾ ഉന്നതങ്ങളിൽ എത്തേണ്ടവർ തങ്ങളാണ് തങ്ങളാണ് കുടുംബം പുലർത്തേണ്ടവർ പെണ്ണുങ്ങൾ വീട്ടിലെ ജോലി മാത്രം ചെയ്ത് ജീവിക്കേണ്ടവരാണ് ഇങ്ങനെ ഉള്ള ചിന്താഗതി ഇപ്പോഴും ഒരുപാട് ആണുങ്ങൾക്കുണ്ട് അതേ സമയം പെൺകുട്ടികൾ ആ അതിർ വരമ്പുകൾ അടുക്കള എന്ന അതിർവരമ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നവരാണ് ആ സമയത്താണ് അവർ ആണുങ്ങളോട് ദേഷ്യം തോന്നുന്നത് ഈ ആണുങ്ങൾ കാരണമാണ് പെൺകുട്ടികൾ ഉള്ളിലായിപ്പോയത് അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഉള്ളിലായിപ്പോയത് അവർക്ക് സമത്വം എന്താണെന്നറിയില്ല അങ്ങനെ ഇങ്ങനെ സ്ത്രീപക്ഷപാധികൾ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇറങ്ങും ഇതു തന്നെയാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി ആണിനും പെണ്ണിനും തുല്യത തുല്യമായുള്ള പങ്ക് സമൂഹത്തിലുണ്ട് എന്ന ആദ്യം എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞങ്ങളെക്കൊണ്ടെല്ലാം സാധിക്കും എന്നുള്ള രീതിയിലാണ് എല്ലാ സ്ത്രീകളും മുൻപോട്ട് വരുന്നത് ഞങ്ങൾക്കിത് പറ്റും ഞങ്ങളെക്കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും ഞങ്ങൾ ആണുങ്ങളോടൊപ്പം ഞങ്ങൾക്ക് സമത്വം വേണം ആണുങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഞങ്ങൾ വളർന്നിരിക്കുന്നു എന്നു കാണിക്കുവാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോഴും ഞങ്ങൾക്കും അവർക്കും തുല്യ സമത്വം മതി അവരേക്കാൾ മുൻപിലെത്തണം എന്നാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ എല്ലാ മേഖലയിലും അത് സാധിക്കുന്നുമുണ്ട് ഇപ്പോൾ നമ്മുടെ ബഹിരാകാശ യാത്ര കഴിഞ്ഞുവന്ന സുനിത വല്യംസിനെ എല്ലാവരും പ്രശംസിച്ചപ്പോൾ കൂടെ ഉള്ള ഒരാൺ സുഹൃത്തിനെക്കുറിച്ച് ആരും കൂടുതലായി പറയുന്നില്ല കാരണം എന്താണ് ഒരു പെൺകുട്ടി അച്ചീവ്മെൻ്റ് അതല്ലെങ്കിൽ ഒരു പെൺകുട്ടി അത് അച്ചീവ് ചെയ്തു എന്നു പറയുന്നതിലാണ് എല്ലാവർക്കും ക്രെഡിറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇപ്പോഴും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് അല്ലെങ്കിൽ എഴുതുവാനായിട്ട് ഒരു പേടി തോന്നുക തോന്നാറുണ്ട് കാരണം ഈ നെഗറ്റീവ് കമൻ്റുകൾ പ്രതീക്ഷിച്ചാണ്